ഞങ്ങളുടെ അവിടെ രണ്ട്മൂന്ന് കടകൾ ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് രണ്ട് കടകളിലേക്കാണ് പോകാറ് പിന്നെ ഇവിടെ പണ്ടത്തെ ഗ്രാമമെന്നു പറയുമ്പോൾ എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് പലചരക്ക് കടയിൽ പണ്ടൊക്കെയായിരുന്നു ഇപ്പോൾ എല്ലാതും പിന്നെ അവർക്ക് സുഖമായി പണ്ടൊക്കെ ആണെങ്കിൽ അവർക്ക് ടൗണിൽ പോയിട്ട് ഒക്കെ ഹോൾ സെയ്ൽ ഒക്കെ ആയിട്ട് വാങ്ങി കൊണ്ടു വരേണ്ട ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അവർക്ക് വണ്ടികളിൽ വന്നിട്ട് അത് നമ്മൾ ഇറക്കി തരുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവർക്ക് ഒകെ ഇച്ചിരി ലാഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അവർ അവിടെപ്പോയി വാങ്ങിച്ചിലെങ്കിലും അവർ നമുക്ക് ഹോം ഡെലിവറിയൊക്കെ തരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ അവിടെ ഇപ്പോൾ നല്ലതാണ് അതുകൊണ്ട്തന്നെ നമുക്ക് ഇപ്പോൾ സുഖമാണ് പിന്നെ നമുക്കറിയുന്ന ആൾകാരായത് കൊണ്ട് പെട്ടെന്ന് പൈസ കൊടുത്തില്ലെങ്കിലും പിന്നീട് പൈസ കൊടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വില പെശാറ് അങ്ങനൊന്നുമില്ല അറിയുന്ന ആൾക്കാർ തന്നെയാണ് ചിലപ്പോൾ അവർ ഒന്ന് രണ്ട് രൂപ എങ്ങാനും റൗണ്ടെയ്തിട്ട് ചിലപ്പോൾ അവർ തരുമായിരിക്കും